ആലപ്പുഴ ജില്ലയിൽ പ്രധാന ഉത്സവ പ്രവർത്തനങ്ങളും വിനോദ പരിപാടികളും ഒരുപാടുണ്ട് പല പല ഒരുപാട് പാർക്കുകളും ഒരുപാട് ബീച്ചുകളും ഉണ്ട് ആലപ്പുഴ ബീച്ചുകൾ നമ്മുടെ ഇപ്പം ന്യൂ യേർ അല്ലാത്ത പരിപാടികളൊക്കെ വരുമ്പം ഒരുപാട് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ആ ഒരുപാട് വിനോദ ടൂറിസ്റ്റുകളും നമ്മുടെ ആലപ്പുഴ സന്ദർശിക്കാൻ വരുന്നുണ്ട് ആലപ്പുഴയിലൊരുപാട് പാർക്കുകളും തിയേറ്റർ സിനിമ തിയേറ്ററുകളും അതിലുപരി ഒരുപാട് വിനോദ സ്ഥലങ്ങളും ഉണ്ട് പിന്നെ തിയേറ്ററിൽ തിയേറ്റർ സിനിമ തിയേറ്ററുകളെന്ന് പറയാനാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലൊരുപാട് നമുക്ക് ഉണ്ട് ഇപ്പം മികച്ച ഇപ്പം ചെങ്ങന്നൂരിൽ തന്നെ മൂന്ന് തിയേറ്ററുകളുണ്ട് ആ മൂന്നും ഒരുപാട് നല്ല സിനിമകൾ ഇപ്പം ഇറങ്ങുമ്പോൾ സിനിമകൾ കാണുന്നവരുണ്ട് പിന്നെ ഒരുപാട് വിനോദസഞ്ചാര മേഖലകളുണ്ട് ആലപ്പുഴ തന്നെ കുട്ടനാട് ആലപ്പുഴ ആലപ്പുഴ ഇങ്ങനെ ഇഷ്ടംപോലെ ബീച്ച് ബീച്ചിൽ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഓരോ ക്രിസ്മസ് ന്യൂ യേർ ഇങ്ങനെ വരുമ്പത്തേന് ഒരുപാട് പാർട്ടി പാർട്ടി സംബന്ധിച്ച് ഒരുപാട് അവിടുത്തെ പ്രവേശനത്തിന് ഇപ്പം ഇപ്പം നം ഒരുപാട് ഫെസ്റ്റിവൽ ഇപ്പം പ്രവേശന പണമെന്ന് പറയുമ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ തിയേറ്ററുകളിൽ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമ ടിക്കറ്റുകൾ അതിങ്ങനെയൊക്കെയുള്ള പ്രവേശന പണം അവിടുന്ന് നമ്മളുടെ അടുത്തു നിന്ന് മേടിക്കാറുണ്ട് പിന്നെ പാർക്കുകൾ ചില പാർക്കുകൾ പാർക്കുകളിൽ നമുക്ക് പ്രവേശന പണം കൊടുക്കേണ്ടി വരുന്നതാണ് ഞങ്ങളുടെ ജില്ലാ സിനിമ തിയേറ്ററുകളിൽ പല രീതിയിൽ നമുക്ക് അവിടെ പല രീതിയിലും പല സൗണ്ടിലും പല സ്ക്രീനിലും ഒരുപാട് മെച്ചപ്പെട്ട തിയേറ്ററുകളിപ്പം നാട്ടിലുണ്ടായി കൊണ്ടിരിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് എല്ലാ ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ല നല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ടൂറിസ്റ്റുകളവിടെ ആലപ്പുഴ ജില്ലയിൽ വരാറുണ്ട് ഒരുപാട് രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് എല്ലാറ്റിലും മുൻപന്തിയിൽ തന്നെ നിൽപ്പുണ്ട് പാർക്കുകളും ഇപ്പോൾ പാർട്ടി പരിപടികളും ഒരുപാട് നമ്മുടെ ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ബീച്ചിലെല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒരുപാട് പരിപാടി ഫെസ്റ്റിവൽ ഒരുപാട് രീതിയിലുള്ള ഫെസ്റ്റുകളും ഒരുപാട് പാർട്ടി പരിപാടികൾ ഒരുപാട് രീതിയിലുള്ള വിനോദ പരിപാടികളെല്ലാം ആലപ്പുഴ ബീച്ചിൽ നടക്കാറുണ്ട് സിനിമ തിയേറ്ററുകൾ ആലപ്പുഴയിൽ ഒട്ട് നമുക്ക് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത രീതിയിലൊരുപാട് സിനിമ ടീയറ്ററുകൾ ആലപ്പുഴയിൽ തന്നെയുണ്ട് ഇപ്പം കുട്ടികൾക്കായാലും ഇപ്പം ഫാമിലിക്കായാലും ഒരുപാട് പാർക്കുകൾ ഇപ്പം ഒഴിവ് സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പാർക്കുകളുണ്ട് ആലപ്പുഴയിൽ ഒരുപാട് തിയേറ്ററുകളുണ്ട് ഫാമിലി തിയേറ്ററുണ്ട് ഫാമിലി റെസ്റ്റോറൻറ്റുണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുണ്ട് നമുക്ക് ഫാമിലിയായിട്ട് പോയി കഴിക്കാം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരുപാട് കഫെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആലപ്പുഴയിൽ എന്ത് കൊണ്ടും ആലപ്പുഴ ഒരു മികച്ച നല്ലൊരു ജില്ല തന്നെയാണ് ആലപ്പുഴയിൽ ആലപ്പുഴെ മാത്രമല്ല എല്ലാ ജില്ലയിലും എന്നാൽ ആലപ്പുഴയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ ആലപ്പുഴേ വരുവാണേ ഒരുപാട് രീതിയിലുള്ള ഇപ്പം ആലപ്പുഴെ തന്നെ ഒരുപാട് കായലുകളുള്ളതിനാൽ അവിടെ എല്ലാം ഹൗസ് ബോട്ടിങ്ങ് ബോട്ടിങ് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആലപ്പുഴയിൽ പിന്നൊരുപാട് പാർക്കുകൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കായാലും നമ്മൾ ഫാമിലി ആയിട്ട് എവിടെ പോയാലും ഒരുപാട് പാർക്കുകൾ നമുക്ക് എഞ്ചോയ് ചെയ്യാനും ഇപ്പം ഒരു സൺഡേ കിട്ടി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലി ആയിട്ടിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് രീതിയിലുള്ള സ്ഥലങ്ങൾ ഉണ്ട് നമ്മുടെ ആലപ്പുഴയിൽ ഇപ്പം ഫെസ്റ്റ് ഇപ്പോൾത്തന്നെ ഒരുപാട് ഫെസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ നമുക്ക് ഒരുപാട് ഫെസ്റ്റ് ഫെസ്റ്റിന് പങ്കെടുക്കാം നമുക്ക് വേണേ ഫെസ്റ്റിന് നമ്മുടെ രീതിലായിട്ടെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സ് നമ്മുടെ രീതിയിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫെസ്റ്റിൽപ്പോയിട്ട് നമുക്കത് ബാക്കിയുള്ളവരെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം നമ്മുടെ ബിസിനസ്സിനെപ്പറ്റി അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇവിടെയുണ്ട് പിന്നെ അങ്ങനെ മികച്ച ഒരുപാട് രീതിയിലുള്ള ഇതുണ്ട്